മിക്സർ ഗ്യാസ് സിലിണ്ടർ ഇൻഡക്ഷൻ കുക്കർ തുടങ്ങിയ ഇലക്ട്രിക്ക് ഉപയോഗങ്ങളിലാണ് എൻ്റെ അടുക്കളയിലുള്ളത് ഇപ്പം പഴയ പഴയതിൽ നിന്നും ഇതു വന്നതോടുകൂടി ഒന്ന് സമയം ലാഭം മിക്സി മിക്സിക്ക് മിക്സർ അരകല്ലിൽ പണ്ടൊക്കെ അരകല്ലിൽ തേങ്ങ അരച്ച് ഭയങ്കര ബുദ്ധിമുട്ട് കുറെ സമയം എടുക്കും പക്ഷേ രുചി കൂടുതലതിനാണെങ്കിൽ പോലും ഇപ്പം എല്ലാവരും മിക്സി ഉപയോഗിക്കുന്നതിലൂടെ പെട്ടന്ന് നമുക്കൊരു സ്വിച്ചിട്ടിട്ടുണ്ടെങ്കിൽ തേങ്ങ അരക്കണമെങ്കിൽ ഒരു സ്വിച്ചിട്ടാൽ മതി തേങ്ങ അരഞ്ഞു പിന്നെ പണ്ടൊക്കെയാണെങ്കിൽ ഇങ്ങനെ കുറേ നേരം ഇരുന്നരയ്ക്കണം എന്തൊരു ബുദ്ധിമുട്ടാണത് അതു വച്ച് നോക്കുമ്പം അതുപോലെ ഗ്രൈന്റർ ഗ്രൈന്ററാണെങ്കിൽ പൊടിക്കാനും മാവരയ്ക്കാനും ഒക്കെ എളുപ്പമാണ് പണ്ട് ഈ ഉരലിലിട്ട് ഇടിച്ച് അല്ലെങ്കിൽ ആട്ടുകല്ലിലാട്ടി ഇട്ടൊക്കെയാണ് മാവൊക്കെ ആക്കിക്കൊണ്ടിരുന്നത് ഇപ്പം അതൊന്നുമില്ല അതിനും ഒരു സ്വിച്ച് മാത്രം മതി ഈസിയായിട്ട് മാവരഞ്ഞുകിട്ടും പിന്നെ ഗ്യാസ് സിലിണ്ടർ പണ്ടൊക്കെ തീ ഊതി ഊതി ഊതി ഊതി മടുക്കും മനുഷ്യന്മാർ അത്രമാത്രം ഊതണായിരുന്നു വിറക് കത്താണ്ടും ഒക്കെയായിട്ട് പുക അടിച്ച് ശ്വാസം മുട്ടൽ വരുന്നു ഇപ്പം അതിൻ്റെയൊന്നും ഒരു പ്രശ്നമില്ല ഗ്യാസ് ഗ്യാസ് വന്നതോടുകൂടി ഈ ചായ വയ്ക്കാനാണെങ്കിലും എന്തിനാണെങ്കിലും ഭയങ്കര എളുപ്പം കരി പാത്രങ്ങൾക്കൊന്നും കരി പിടിക്കേണ്ട ആവിശ്യമില്ല തേച്ച് കഴുകാൻ എളുപ്പം പിന്നെ ഓവൻ ഓവനിപ്പം മിക്ക വീടുകളിലുമുണ്ട് നമുക്ക് ഒരു ഭക്ഷണം ചൂടാക്കിയെടുക്കാനോ കേക്കുണ്ടാക്കാനും ഒക്കെ ഓവൻ വളരെ നല്ലതാണ് പണ്ടുകാലത്ത് എല്ലാവരും ഇഡ്ഡലിപ്പാത്രം അങ്ങനെയൊക്കെ സാധനങ്ങൾ ഉപയോഗിച്ചിരുന്നപ്പം ഇപ്പം ഓവനൊക്കെയായി എല്ലാവരും ഉപയോഗിക്കുന്നു ഒന്ന് മെയിനായിട്ടു സമയം ലാഭം തന്നെ പക്ഷേ രുചി കൂടുതൽ പണ്ടത്തെ ഉപയോഗങ്ങൾക്ക് അടുപ്പിൽ മീൻകറിയൊക്കെ ആണെങ്കിൽ അടുപ്പിൽ വയ്ക്കുന്നതായിരുന്നു രുചി കൂടുതൽ മൺചട്ടിയിൽ ഇപ്പം ഗ്യാസിലൊക്കെയായപ്പോഴത്തേക്ക് രുചി കുറഞ്ഞു അതുപോലെത്തന്നെ അസുഖങ്ങളും കൂടുതലാണ് ഇപ്പം പണ്ട് നല്ല അധ്വാനിക്കുമായിരുന്നു നല്ല ഭക്ഷണം കഴിക്കുമായിരുന്നു ഇപ്പം നമ്മൾ ഇങ്ങനെ ഫാസ്റ്റ് ഫുഡ് പോലെയുള്ള ഐറ്റംസും അധികം പണിയെടുക്കാതെ ഇങ്ങനെ മിക്സി ഈ ഗ്രൈന്റർ ഒക്കെ ഉപയോഗിച്ച് ഒക്കെ അപ്പം ജീവിതശൈലി തന്നെ മാറി അതുകൊണ്ട് കൂടുതൽ അസുഖങ്ങളും വന്നുതുടങ്ങി സമയം ഒരു ലാഭം തന്നെ പഴയതിൽ നിന്നും ഞാൻ നോക്കുമ്പം ഗ്യാസും മിക്സിയും ഗ്രൈൻഡറും ഒക്കെ വന്നതോടു കൂടി സമയം ലാഭമായി അതേയുള്ളു ഗുണം